കർഷക ആത്മഹത്യയെ കുറിച്ച് ഒരിക്കലും കർഷക ആത്മഹത്യകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ ചിന്ത ഇത് ചെറുതായിരുന്നാലും ചെറിയ കൃഷി ആയിരുന്നാലും വലിയ കൃഷി ആയിരുന്നാലും ഒക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെ സംരക്ഷണം കൊടുക്കാൻ എല്ലാ തരത്തിലും സർക്കാരും കൂടെ മുൻകരുതലെടുത്ത് ഇൻഷൊറൻസ് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ശരി തന്നെ ഇൻഷൊറൻസ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവർക്ക് സംരക്ഷണം കൊടുക്കാൻ സർക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് എൻ്റെ ചിന്ത